ഞാൻ ഇവിടെ നിന്നൊരു എൻ്റെ പേര് ലതയാണ് പിന്നെ എനിക്ക് ഒരു കല്ല്യാണ ആവശ്യത്തിനായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ തോണിച്ചാൽ

ആ അപ്പോൾ വീഡിയോ ആയിട്ടുതന്നെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എത്രയാകും എത്ര ആ എൻ്റമ്മോ അമ്പത്തഞ്ച് രൂപയോ എന്നാൽ ഫോട്ടോ

അല്ല ഫോട്ടോ മാത്രമാണെങ്കിലോ എന്നാലും വലിയ കുറവൊന്നും ഇല്ല അല്ല എന്നാൽ ഫോട്ടോ മാത്രം മതി നമുക്ക് അത്രയേ സാമ്പത്തികം ഉള്ളൂ

ആ എന്നാൽ ഞാനൊന്ന് ചോദിച്ചിട്ട് എന്നാൽ എന്നാൽ ഒന്നും കൂടി വിളിച്ച് ചോദിച്ചിട്ട് പറയാം ഞാൻ എന്നാൽ വിവരം പോലെ ഓഹ് എന്നാൽ അങ്ങനെ ആയാലും മതി ഇല്ല ഇതിലില്ല മകളെ നമ്പറിലേക്ക് ഇട്ടാൽ മതി അത് വാട്ട്സ്ആപ്പ് ഉണ്ട് ആ എല്ലാം കൂടി ഒരു നാല്പതിനായിരം ആക്കിത്തരുമോ വീഡിയോ അടക്കം ചെയ്തു തരാൻ പറ്റുമോ ആ ആ ആ പിന്നെ വന്നിട്ട് പിന്നെ വർത്തമാനം ഒന്നും പറയാൻ കഴിയില്ല ഞങ്ങൾ ഞങ്ങൽ പാവങ്ങളാണ് വലിയ കഴിവൊന്നും ഇല്ല പിന്നെ മകളെ ഒരാഗ്രഹം ഫോട്ടോ എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ കല്ല്യാണം പിന്നെ ജൂലൈ മുപ്പതിന് ആ അപ്പോൾ തലേദിവസം വരാൻ പറ്റുമോ ആ ആയിക്കോട്ടെ എന്നാൽ തലേദിവസം വൈകുന്നേരം വന്നാൽമതി വലിയ ചടങ്ങൊന്നും ഇല്ലല്ലോ അപ്പം ചെറുതായിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് കുറെ ആൾക്കാരെല്ലാം ഉണ്ടാകുമല്ലോ തലേദിവസം വിളിക്കുമ്പോഴെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ